എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ബഷീർ ബഷീറിക്കായെ ആണ് അതായത് ഇതിൻ്റെ അകത്ത് കൊച്ചിലെ തൊട്ട് കേൾക്കാറുള്ളതാണ് എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഉള്ള ഒരു ആടെന്നു പറയുന്നത് ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കൊച്ചു പിള്ളേർക്ക് ആണെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ എപ്പഴും നല്ലൊരു കഥയാണ് പിന്നെ വേറെ കഥകളൊക്കെയും വായിക്കാറുണ്ട് എനിക്ക് ഏറ്റവും താല്പര്യമായിട്ടൊക്കെ തോന്നുന്ന കവിയായിട്ടാണ് കവിയാണ് ബഷീറിക്ക അപ്പോൾ പലരുടെയും കവിതകളൊക്കെ വായിക്കും വായിക്കാറുണ്ടായിരുന്നു ഇപ്പം സമയം ഒക്കെ കുറവാണ് കാരണം അങ്ങനെ വായനാശീലം ഒക്കെ വളരെ കുറവായി പോയി മറ്റേത് ചുമ്മാ ഇരിക്കുമ്പം കവിതയൊക്കെ ഇപ്പോൾ ഇത്തിരി തിരക്ക് ജോലികളൊക്കെ കൂടുതലും തിരക്കുകളൊക്കെയുണ്ട് പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് കഥയൊക്കെ വായനയൊക്കെ കുറവാണ് പിന്നെ ടി വിയിലൊക്കെ ഓരോന്നൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇന്ന ആളുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കവിതയൊക്കെ കേൾക്കുമ്പം അതിനോടൊക്കെ വളരെ താല്പര്യമായിട്ട് താല്പര്യമുണ്ട് കഥ പറയാനൊക്കെ ഇഷ്ടമാണ് പിള്ളേരോടൊക്കെ കൊച്ചു പിള്ളേരോടൊക്കെ കഥ പറയാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പിള്ളേർക്കൊക്കെ അതുകൊണ്ട് എന്നോട് വളരെ താല്പര്യമാണ് വല്ലതും ഒക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കും കഥകളൊക്കെ ചെറുകഥകളൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ ബാലരമയും അങ്ങനെയൊക്കെയുള്ളത് വായിക്കാറുണ്ട് അന്നേരം ഒക്കെ ഒത്തിരി ചെറിയ ചെറിയ കഥകളൊക്കെ കിട്ടാറുണ്ട് കവിതകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പദ്യപാരായണത്തിനൊക്കെ ചേരുകയും അങ്ങനെയൊരോ കവിതകളൊക്കെ ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു പിള്ളേർ ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ എന്ന് പറയുന്നത് പുതിയ പുതിയ സിനിമ പാട്ടുകളും അങ്ങനെയൊക്കെയാണ് ആ പഴയ പാട്ടുകളും കഥകളും ഒക്കെയാണ് ഇപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത്

വച്ചേക്ക്